നമ്മുടെ പ്രദേശത്തെ അഹമ്മദ് തോട്ടത്തിൽ രവീന്ദ്രൻ അവരൊക്കെയാണ് എം എൽ എ മാര് എം പി രാഘവൻ ആണ് എം കെ രാഘവൻ ആണ് നമ്മുടെ എം പി ആയിട്ട് വരുന്ന ആള് പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് കാലിക്കറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയാണ് അവരുമായിട്ട് നേരിട്ട് ഇടപെടേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല ജോലി ആയിട്ടുള്ള ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല പിന്നെ കുടുംബശ്രീ വകയുള്ള ക്ലാസ്സുകളിലൊക്കെ ഇവരാരെങ്കിലൊക്കെ വന്ന് അങ്ങനെയുള്ള ക്ലാസുകളിലൊക്കെ വച്ചിട്ട് ഈ ഷീജ ശശിനെ അവരെയൊക്കെ കണ്ടിട്ടുണ്ട് അവരെ അവരെ കണ്ടിട്ടുണ്ട് അങ്ങനെ അടുത്തിടപെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് വന്നിട്ടില്ല പിന്നെ ഇവരൊക്കെ എന്ത് കാര്യത്തിനും നമുക്ക് എടുത്ത് ചെന്ന് സഹായിച്ചു തരുന്ന ആൾക്കാരാണ് പിന്നെ കണ്ടിട്ടുണ്ട് ഓരോ പരിപാടികൾക്ക് കാണാതെ അല്ലാതെ നമുക്ക് പേർസണലി അവരെ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല